തീർച്ചയായും ലോകം മാറിയിട്ടുണ്ട് ഒരുപാട് പണ്ടത്തെ ഒരു ലോകമല്ല ഇപ്പോൾ ഉള്ളത് പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മരങ്ങളും അതായത് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ വീട് അതായത് പുൽ മേഞ്ഞ പുല്ല് മേഞ്ഞ വീടുകൾ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പീഡനം അങ്ങനത്തെ ക കഥകളൊക്കെയാണല്ലൊ പണ്ടെന്ന് പറഞ്ഞാൽ പീഡനങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിൻ്റെ അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലം ഇതുതന്നെയാണ് ഇപ്പോഴത്തെ കാലം തന്നെയാണ് നല്ലത് പക്ഷേ അല്ലാത്ത ഇത് പറയുമ്പോൾ പണ്ടത്തെ കാലം തന്നെയാണ് നല്ലത് ഒരുപാട് പീഡനങ്ങളില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി പിന്നെ നമുക്ക് നല്ല അതായത് മഴക്കാലത്ത് മഴ കിട്ടും വേനൽകാലത്ത് വേനൽ മഞ്ഞുകാലത്ത് മഞ്ഞ് പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് മനുഷ്യന്മാരുടെ ക്രൂരമായ ഇടപെടലുകൾ കൊണ്ട് ഇപ്പോൾ മഴ പോലും ഇല്ലാത്ത ഒരു സാഹ അവസ്ഥയാണ് വരുന്നത് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ലവണ്ണം മഴ പെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ മഴ പോലും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ വെള്ളം കുടിക്കാണ്ട് എല്ലാവരും മരിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നു കാരണം ഇപ്പം മഴക്കാലത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് വേനൽ കാലത്ത് അതുപോലെ അത്യാവശ്യം അതായത് അത്യാവശ്യം വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇതിപ്പോൾ മഴയില്ലല്ലോ ഇപ്പം തന്നെ അതായത് ഡാമുകളിലൊക്കെ അതായത് കഴിഞ്ഞ വർഷം ഒക്കെ എൺപത്തിയൊന്ന് ശതമാനം ഒക്കെ ഡാം നിറഞ്ഞിട്ട് ഇ ഇരിക്കുന്ന ഡാം ഇപ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനം ഒക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ കറൻറ്റിന്റെ കാര്യത്തിലൊക്കെ വളരെ കഷ്ടതയിലാണ് നമ്മൽ ഇനി ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ കട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും എന്നാൽ മാത്രമേ നമുക്ക് കറൻറ്റ് ലഭിക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് കറൻറ്റ് കറൻറ്റ് ഓവർ അതായത് രാത്രി അതായത് ആറ് മണി തൊട്ട് പതിനൊന്ന് മണി വരെ കറൻറ്റിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ബാക്കിയുള്ള സമയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ കറൻറ്റ് ഇല്ലാണ്ടൊന്നും നടക്കില്ലല്ലോ അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ എത്തി കഴിയുമ്പോൾ കറൻറ്റിൻ്റെ ഉപയോഗം ഒക്കെ വളരെ കുറച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യൻമാരുടെ ക്രൂരമായ ഇടപെടലുകൊണ്ടാണ് മരം വെട്ടുന്നതും പിന്നെ മലകൾ ഇടിക്കുന്നതും പിന്നെ പൊ മണൽ വാരുന്നതും ഇങ്ങനെയുള്ളതൊക്കെ പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്കും നേരെയൊരു തിരിച്ചടി നൽ നൽകും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്